ഇന്ത്യയിൽ എന്നു പറഞ്ഞാൽ ഒത്തിരി മതങ്ങളുണ്ട് ഈ ഹിന്ദുസ്ഥാനെന്ന് പറയുമ്പോൾ തന്നേ ആ അതിൻ്റെ ലെറ്റേഴ്സിൽ തന്നെ പറയുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജെയിൻ സിഖ് പഞ്ചാബി അതുകണക്ക് ഇഷ്ടംപോലെ മതങ്ങളുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ എല്ലാവരും ഇത്രയും മതക്കാരും ഒന്നിച്ചു ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയിലുഉളത് അങ്ങനെയെക്കെയാണെങ്കിൽത്തന്നെയും മതങ്ങളുടെ പേരിലാണെങ്കിലും ഒത്തിരിയാൾക്കാരെ നമ്മൾ മാറ്റിനിറുത്തുന്നുണ്ട് മതങ്ങളുടെ പേരിൽ തമ്മിൽത്തല്ല് ഉണ്ടാവുന്നുണ്ട് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്നാലും അത് വളരെ കുറച്ചാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ ഈയടുത്തകാലത്ത് അങ്ങനെയൊക്കെയുണ്ടാവുന്നത് കൂടുതലാണ് എന്നിരുന്നാലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുക അതായത് മതത്തിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ നിലനിറുത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസിലാക്കേണ്ടത് മതമെന്ന് പറയുന്നത് ഒരാളെ നമ്മൾ മാറ്റിനിറുത്താനോ അല്ലെങ്കിൽ അവരെ നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്ന ഒരാളെ നമ്മൾ വിമർശിക്കാനോ ഉള്ളൊരു കാര്യമല്ല മതമെന്ന് പറയുന്നത് മതം അതിപ്പോൾ ഒരോരുത്തരെ വിശ്വാസമാണ് അത് ഓരോരുത്തരുടെ തീരുമാനമാണ് അല്ലെങ്കിൽ അതവരുടെ ഒരു സിറ്റുവേഷൻ ആണ് അതിനെ നമ്മളൊരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല അതിനെ നമ്മളൊരിക്കലും വിമർശിക്കാനോ അത് നീ ചെയ്യരുത് അത് നിനക്ക് പറഞ്ഞിട്ടുള്ളത് അല്ല അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻപാടില്ല ഓരോ മതത്തിലും ഓരോ വിശ്വാസമുണ്ട് എന്നാൽ തന്നെയും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് അതുകൊണ്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും മതങ്ങളുണ്ടെങ്കിലും പരസ്പരം നമ്മൾ ഒരു ഒത്തൊരുമയോടെ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയൊരു പ്രശ്നം അതായത് മതത്തിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായാലും അത് മറ്റുള്ളവർ തമ്മിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരു മതവും ഒന്നിനേക്കാളും മോളിലോ അല്ല ഒന്നിനേക്കാളും താഴെയും അല്ല അത് എല്ലാവരും മനസിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ ക്ലാസ്സിഫൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയൽ എല്ലാത്തിലും ഓരോ എല്ലാ മതത്തിലും ഒരിക്കലും ഒരാളെ നോവിക്കണം എന്ന് പറയത്തില്ല എല്ലാ മതത്തിലും പരസ്പരം സ്നേഹിക്കണം മറ്റൊരാളെ സഹായിക്കണം ഒരു സ്നേഹത്തിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ഫോംസ് ആണ് അതിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു മതത്തെയും ഒരു മതത്തിലുള്ള ആളെ നമ്മൾ മാറ്റിനിറുത്തരുത് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ് മതമെന്ന് പറയുന്നത്